നമ്മുടെ ജീവിതത്തില് പത്രമാധ്യമങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് പത്രമാധ്യമങ്ങളിലൂടെ വരുന്ന കാര്യങ്ങള് വായിച്ച് ആണ് നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ മാനസ്സിലാക്കുക എന്തെല്ലാം കാര്യങ്ങള് സംഭവിക്കുന്നുവെന്നും അതോടൊപ്പം തന്നെ ലോകത്തിനെന്തെല്ലാം മാറ്റങ്ങളുണ്ടാകുന്നതെന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്തെക്കെ സംഭവിക്കുന്നൂ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയുക പത്രമ മാധ്യമങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതത്തെ ബൗദ്ധിക പരമായിട്ടും അതുപോലെ വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതും പത്രമാധ്യമങ്ങളിൽ കൂടിയാണ് പത്രമാധ്യമങ്ങള് ഒരുവൻ്റെ ജീവിതത്തില് ഒത്തിരിയേറെ സ്വാധീനം ചെലുത്തുന്നു നമ്മുടെ ജീവിത ശൈലി തന്നെ രൂപപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ ലോകത്തിലുണ്ടാകുന്ന വിവിധ സംഭവങ്ങളെ നമ്മുടെ ജീവിതത്തില് മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതിനും ലോകത്തില് എന്തൊക്കെ നടക്കുന്നു എന്നൊക്കെ അറിയുന്നതും അതുപോലെ തന്നെ വാർത്തകളും പ്രധാന കണ്ടുപിടുത്തങ്ങളും ലോകത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും ലോകത്തില് സംഭവിക്കുന്ന കാര്യങ്ങളുമെല്ലാം നമുക്ക് പത്രമാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ പത്രമാധ്യമങ്ങള് വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ല ഏറ്റവും എളുപ്പത്തില് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് വാർത്താ മാധ്യമങ്ങള് കൂടെയാണ് അതുപോലെ അനുകാലിക സംഭവങ്ങള് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മള് മനസ്സിലാക്കുന്നതും ലോകത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ കാര്യങ്ങള് സാങ്കേതിക സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങള് അതുപോലെ ഉണ്ടാകുന്ന മാറ്റങ്ങള് ബഹിരാകാശ മേഖലയിലുണ്ടാകുന്ന മാറ്റങ്ങള് ആഗോള രാജ്യങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങള് അതുപോലെ തന്നെ വാണിജ്യപരമായ ഓഹരി വിപണയിലുണ്ടാവുന്ന മാറ്റങ്ങള് ഇങ്ങനെ ഒത്തിരിയേറെ മാറ്റങ്ങള് നമുക്ക് പത്ര മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പം അത് നമ്മുടെ ജീവിതത്തിൻ്റെ നേട്ടങ്ങളത് വഴി ഉണ്ടാക്കാനായിട്ട് കഴിയും അറിവ് വർദ്ധിപ്പിക്കുക മാത്രമല്ല മറ്റുള്ള കാര്യങ്ങള് നമ്മള് അറിയുന്നതും പത്രമാധ്യമങ്ങളിൽ കൂടിയാണ് പത്രമാധ്യമങ്ങളില് ഒരുവൻ്റെ ജീവിതത്തില് വളരെയേറെ സ്വാധീനം ചെലുത്തുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക ഇപ്പോൾ ഒരുവന് ആവശ്യമായ പൊതു വിജ്ഞാനം അതുപോലെ തന്നെ വ്യത്യസ്തമായ ആളുകളുടെ ജീവിത ശൈലികള് അവരുടെ ചിന്താരീതികള് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തില് ഒരു ഉൾക്കാഴ്ച ഉണ്ടാകാനുമൊക്കെ പത്രമാധ്യമങ്ങള് മാധ്യമങ്ങള് നമ്മളെ സഹായിക്കും അപ്പോൾ വളരെ എളുപ്പത്തില് ലാഭകരമായിട്ടുള്ള രീതിയില് നമുക്ക് ഇത് മനസ്സാക്കാൻ കഴിയുന്നത് വാർത്താ മാധ്യമങ്ങളിൽ കൂടി തന്നെയാണ് പത്രങ്ങള് നമുക്ക് നൽകുന്ന അനുകാലിക സംഭവങ്ങള് അത് വളരെയേറെ വിശ്വാസ്യപരവും അതുപോലെ തന്നെ വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങള് അല്ലെങ്കില് ഏറ്റവും നല്ല രീതിയില് സത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കെ ആകുമ്പോഴ് അത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കില് സമൂഹത്തിൽ എന്തൊക്കെ മാറ്റങ്ങള് വരുന്നു എന്തൊക്കെ കുറവുകളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇതുവഴി സാധിക്കും അങ്ങനെ വാർത്താമാധ്യമങ്ങളിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ കാര്യങ്ങള് മനസ്സിലാക്കി ജീവിതത്തെ വളരെ നല്ല രീതിയില് മുന്നോട്ട് കൊണ്ടു പോകാനായിട്ട് കഴിയും അനുകാലിക സംഭവങ്ങള് മനസ്സിലാക്കുക വഴി ലോകത്തില് എന്തെല്ലാം സംഭവിക്കുന്നുവെന്നും ലോകത്തിൻ്റെ ഗതിയും അതുപോലൊപ്പം തന്നെ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളുമൊക്കെ നമുക്ക് അതിലൂടെ നോക്കി മനസ്സിലാക്കാനായിട്ടും അതുപോലെ ലോകത്തില് സംഭവിക്കുന്ന കാര്യങ്ങള് നമുക്ക് ബോധ്യപ്പെടാനൊക്കെയായിട്ട് സാധിക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അപ്പോഴ് പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ നമുക്ക് അതുവഴി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും ഒക്കെ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാല് പത്ര മാധ്യമങ്ങള് ലോകത്തില് എത്രയേറെ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ് പത്രമാധ്യമങ്ങളിലൂടെ ആളുകളുടെ വീക്ഷണത്തെയും അതോടൊപ്പം തന്നെ അവരുടെ ചിന്താരീതിയും എല്ലാം സ്വാധീനിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോഴ് പത്രങ്ങളും അതുപോലെ തന്നെ വിവിധ വാർത്താമാധ്യമങ്ങളുമെല്ലാം നമുക്ക് വളരെയേറെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാന് പറ്റും